റേഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വാർത്ത ഇഷ്ടമാണ് അതിന് നമ്മൾ രാവിലെ എണീറ്റ് നല്ല നല്ല പാട്ടുകൾ ഒക്കെ ഉണ്ടാകും പിന്നെ അതുപോലെ ഉച്ചക്ക് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഴയ പാട്ടുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കാൻ തന്നെ നല്ല രസമായിരിക്കും പിന്നെ ഇപ്പോഴും വാർത്ത ഒക്കെ ഉണ്ടാകും ആ ഈ നമ്മൾ ടി വിയിൽ കാണുന്നതിനെക്കാളും നല്ലൊരു വൈബാണ് നമ്മൾ ഒ ഇതിൽ റേഡിയോയിൽ കേൾക്കുമ്പോൾ പിന്നെ ആദ്യകാലങ്ങളിൽ ഒക്കെ ഞാൻ വീട്ടിൽ ഒക്കെ നിൽക്കുന്ന സമയത് അച്ഛൻ്റെ അടുത്ത് ഒരു റേഡിയോ ഉണ്ടായിരുന്നു അച്ഛൻ രാവിലെ ആറ് മണിക്ക് എണീക്കുമ്പോൾ ആ റേഡിയോ വെച്ചിട്ടാണ് അച്ഛൻ എണീക്കുക പിന്നെ അതൊരു എട്ട് മണിവരെ ആ റേഡിയോ എങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരവും അച്ഛൻ നമ്മൾ ടി വി വെക്കുമ്പോൾ ഒന്നും അത് കാര്യമാക്കില്ല നല്ല സൗണ്ടിൽ റേഡിയോ വെച്ച് അച്ഛൻ ഇരിക്കും അച്ഛൻ ടി വി കാര്യങ്ങളൊന്നും കാണില്ല പിന്നെ കൂടുതലും ന്യൂസ് കേൾക്കും പഴയ പാട്ടുകൾ ഒക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് നല്ല രസമാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും പരിപാടികൾ കേൾക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിപ്പിക്കും പിന്നെ അത് അച്ഛൻ പണ്ട് തൊട്ടേ അച്ഛൻ റേഡിയോ ഉള്ള റേഡിയോ ആയിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി വിയാണ് ഞാൻ കൂടുതലും കാണാറ് ഞാൻ അങ്ങനെ റേഡിയോയിൽ അധികം അങ്ങനെ കേൾക്കാറൊന്നുമില്ല